പതിനേഴ് അഞ്ച് ആയിരത്തിത്തൊള്ളായിരത്തി എഴുപത്തൊൻപത് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഒന്ന് ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ആറ് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തിപ്പത്ത് ഇരുപത്തി രണ്ട് ആറ് രണ്ടായിരത്തി പതിനഞ്ച്